പരമ്പരാഗത രീതിയില് മത്സ്യം പിടിക്കുന്നത് വല വീശിയും ഒക്കെ ആറുകളിൽ നിന്നും തോടുകളിൽ നിന്നും കായലുകളിൽ നിന്നും ഒക്കെ മത്സ്യം പിടിക്കുന്നത് ഇപ്പോള് മത്സ്യത്തിന്റെ ലഭ്യത വളരെ കുറവാണ് കൂടുതലായി സര്ക്കാർ മത്സ്യം കുഞ്ഞുങ്ങളെ ഇതിലൊക്കെ നിക്ഷേപിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണുണ്ട് അതുപോലെതന്നെ പ്രത്യേകം മത്സ്യം വളര്ത്തുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഈ പ്രൈവറ്റായിട്ട് കുളങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്ത് അതിനുള്ള ചിലവുകള് മുഴുവനും കൊടുത്താല് മാത്രമെ ആള്ക്കാരതില് താല്പര്യപ്പെട്ടുവരികയുളളു അല്ലാതെ ഭാഗികമായി കൊടുക്കുകയും ബാലന്സ് നഷ്ടപ്പെടുകയും ചെയ്യന്നു അതുപോലെതന്നെ മത്സ്യം തന്നെ നഷ്ടപ്പെട്ടു പോയികഴിഞ്ഞാല് നമ്മള് ചത്തുപോയിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് അതിന് പൂര്ണ്ണമായിട്ട് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു സാഹചര്യംകൂടി ഉണ്ടാക്കിയെങ്കില് മാത്രമേ ഈ മേഖലയിലേക്ക് കൂടുതല് ജനങ്ങളെ ആകര്ഷിക്കുവാന് സാധിക്കുകയുളളൂ